നൃത്തം കളിക്കുമ്പോൾ കൂടുതലായിട്ടും സ്ത്രീകളാണെങ്കിൽ ചുരിദാറും പിന്നെ അങ്ങനത്തെ കുറേ നൃത്തമായിട്ടുള്ള കുറേ സ്ഥല സാധനങ്ങളൊക്കെയുണ്ട് അവരാണ് കൂടുതലായിയിട്ടും അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ആണുങ്ങൾ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇപ്പം പാൻ്റ് ഷർട്ട് അങ്ങനെ ഏത് നൃത്തത്തിനാണോ അതിനനുസരിച്ചുള്ള ഡ്രെസ്സും കാര്യ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ധരിക്കാറ് അപ്പം നർത്തകർ ധരിക്കുന്നത് കൂടുതലായിട്ടും ഇപ്പം സാരി അങ്ങനെ പലതും ധരിച്ചിട്ട് ചെയ്യാറുണ്ട് പിന്നെ ചിലങ്ക കയ്യിലുള്ള വള മാല ഇതൊക്കെ ഒരു വ്യത്യസ്ത തരം മാലയും വളയും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു സാധനങ്ങളാണ് അപ്പം ഇതൊക്കെ പലരും പല രീതിയിലാണ് ധരിച്ചിട്ട് ഡാൻസ് കളിക്കാറുള്ളത്